പാട്ടു പാടാനായിട്ട് ദിവസത്തിൽ അധികസമയമൊന്നും ഞാൻ വെയ്ക്കാൻ മാറ്റി വെയ്ക്കാറില്ല ഞാൻ ജോലി ചെയ്യുന്നൊരാളാണ് ജോലിയിൽ എനിക്കൊത്തിരി ബുദ്ധിമുട്ടുകളൊക്കെയുണ്ട് ഒത്തിരി തിരക്കുകളൊക്കെയുണ്ട് അന്നാ ആ സമയത്തൊന്നും എനിക്കൊന്നും പാട്ടിനായിട്ട് പ്രത്യേകിച്ചൊരു സമയം മാറ്റി വെയ്ക്കാനൊ ഒന്നും പറ്റാറില്ല പിന്നെ ഞാൻ പാടുന്ന എപ്പോഴാന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ എന്തെങ്കിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം പാടാറുണ്ട് അല്ലാതെ ഞാൻ വെ വെളീപ്പോയി പാട്ടു പാടാനായിട്ടൊന്നും ഞാൻ പഠിക്കാറുമില്ല പാടാറുമില്ല എന്റെ ഇഷ്ടത്തിനു വേണ്ടിയിട്ട് ഞാൻ പാടാറുണ്ട് കുറച്ചു സമയം അങ്ങനെ ഞാൻ സമയമൊന്നും ഞാനങ്ങനെ അതിനുവേണ്ടി മെനക്കെടാറൊന്നുമില്ല എനിക്കതിനുള്ള സമയം കിട്ടാറില്ല അതിനുവേണ്ടി തന്നെ ഇച്ചിരി സമയം നോക്കിയിരുന്നു അങ്ങനെയൊന്നും പഠിക്കാനൊന്നും എനിക്ക് പറ്റാറില്ല പിന്നെ എപ്പോഴേലും സമയം കിട്ടുമ്പോഴത്തേക്കും സമയം കിട്ടുമെന്നു പറഞ്ഞാൽ എന്തെങ്കിലും ജോലിക്കിടയിൽ മാത്രം അങ്ങനെ ആ ഒരു കുറച്ചു സമയം ക കുറച്ച് സമയമെന്നു പറഞ്ഞാൽ ഒരഞ്ചോ പത്തോ മിനിറ്റൊക്കെ ചിലപ്പം കിട്ടുമായിരിക്കും അന്നേയുള്ളു അല്ലാതെ എനിക്ക് കൂടുതൽ സമയമൊന്നും പാടാനൊന്നും ഉള്ള ഇതൊന്നുമില്ല അതിനുള്ള സമയമല്ല തിരക്കാണല്ലൊ എപ്പോഴും നമ്മൾ തിരക്കാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണം അതിൻറ്റെടേ അത്രയൊക്കെ പാറ്റത്തുള്ളു